അതേലോ ഇത് ആരായിരുന്നു സംസാരിക്കുന്നത് ഓക്കേ ഓക്കേ ഓക്കേ ഇപ്പൊൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടിയാണോ ആ ഓക്കേ അപ്പൊൾ ഏതായിരുന്നു കോഴ്സ് ഏതായിരുന്നു അതെല്ലേ അപ്പൊൾ പ്ലസ്ടുവിൽ ഏതായിരുന്നു സ്ട്രീം എടുത്തത് ബയോളജി സയൻസ് ആയിരുന്നു ഓക്കേ അപ്പൊൾ എന്തുകൊണ്ടാണ് ഐടി ഫീൽഡിലേക്ക് നോക്കുന്നത് ഓക്കേ ഓക്കേ അപ്പൊൾ ഐടി ആണ് താല്പര്യം അല്ലെ ആ ഇപ്പം സാധ്യത ഉള്ള മേഖല എന്ന് പറയുമ്പം ബിടെക് അല്ലെങ്കിൽ ബിസിഎ ബിസിഎയിൽ ആണെങ്കിലും അതിൻ്റെ അഡോൺ കോഴ്സുകൾ ഒകെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പൊൾ എന്തെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടായിരുന്നോ ബിസിഎ ആയിരുന്നോ നോക്കിയിരുന്നത് ആ ഓക്കേ അപ്പം അതിൻ്റെ ആഡോൺ ഏതെങ്കിലും നോക്കിയിരുന്നോ ക്ലോക്ക് കമ്പ്യൂട്ടിങ്ങോ അല്ലെങ്കിൽ എഐഒ അങ്ങനെ ഏതെങ്കിലും ഓക്കേ എ ഐ വിത്ത് ക്ലോക്ക് കമ്പ്യൂട്ടിങ് ആ ഓക്കേ നിങ്ങൾ ഇപ്പൊൾ ഏത് എങ്ങനെ ഉള്ള കോളേജുകളിലാണ് നോക്കുന്നത് കുറച്ച് പൈസ നോക്കിട്ട് ആണോ അതോ നല്ല കോളേജുകൾ നോക്കി ആണോ അങ്ങനെ എന്തെങ്കിലും സജസ്ഷൻസ് എന്തേലും ഉണ്ടോ ഓക്കേ ഓക്കേ ഓക്കേ അപ്പൊൾ കേരളത്തിൽ എന്ന് പറയുമ്പോൾ കുടുതലും അലോട്ട്മെൻ്റ് പോലെ അതായത് മാനേജ്മന്റ് സിറ്റ് വരുന്ന വളരെ കുറവാണ് പക്ഷേ എന്നാലും കോളേജുകൾ ഉണ്ട് ആ അതില് ഇപ്പം നിങ്ങൾക്ക് എങ്ങനത്തെ വേണ്ടന്ന് പറഞ്ഞാല് പറയുവാണെങ്കിൽ അതിന് അനുസരിച്ച് കോളേജുകള് നോക്കാം പിന്നെ ഈ മാനേജ്മെന്റ് സീറ്റുകൾ വരുന്ന കോളേജുകൾ പൊതുവെ കുറവാണ് കേരളത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൂടെ സാധ്യത എന്ന് പറയുമ്പോൾ തമിഴ്നാടോ അല്ലങ്കിൽ കർണാടകയോ ആണെങ്കില് ഈ ബിടെക് അല്ലെങ്കിൽ ബിസിഎ അങ്ങനെ ഉള്ള കോഴ്സുകൾക്ക് കുറച്ചൂടെ നല്ല ട്യുട്ടറിങ് കിട്ടും പിന്നെ അതുപോലെ എക്സ്പിരിയൻസ് ആയിട്ടുള്ള ആൾക് ടീച്ചേഴ്സ് ഉള്ള കോളേജസുകളിലേക്ക് എടുക്കാൻ പറ്റും

കേരള ഓക്കേ ഓക്കേ ഓക്കേ അപ്പം അലോട്ട്മെന്റ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തിരുന്നോ മാനേജ്മെന്റ് തന്നെ എടുക്കാനാണോ ഓക്കേ അപ്പം വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ അത് ചോദിച്ച് ചോദിക്കുവാണെങ്കിൽ അതിന് അനുസരിച്ചുള്ള കോളേജുകൾ അയച്ച് തരാം പിന്നെ ഈ നമ്പറിൽ വാട്ട്സ്ആപ്പ് ഉള്ളത് അല്ലെ ഓക്കേ അപ്പം കോളേജ് ഡീറ്റെയിൽസ് ഞാൻ ഈ നമ്പറിലേക്ക് സെൻറ് ചെയ്യാം ഓക്കേ ഇപ്പൊൾ എത്ര പേഴ്സൺൻ്റെജ് ഉണ്ടായിരുന്നു പ്ലസ്ടുവിന് ആ എത്ര കേട്ടില്ല എയ്റ്റിഫൈവ് ഓക്കേ വേറെ ടെൻത്തിൽ എത്ര പേഴ്സൺൻ്റെജ് ഉണ്ടായിരുന്നു നയൻറ്റി പേഴ്സൺൻ്റെജ് ഉണ്ടായിരുന്നു ഓക്കേ ഓക്കേ അപ്പൊ എന്തായാലും നിങ്ങള് ബയോളജി ആയിരുന്നത് കൊണ്ട് ഐടി ഫീൾഡിലോട്ട് മാറുമ്പോൾ ചെറിയ എന്തെങ്കിലും കോഴ്സ് ചെയ്യേണ്ടി വരും അത് കുഴപ്പമില്ല അ അത് എവിടന്ന് ചിലപ്പം അവിടന്ന് നമ്മൾ എടുക്കുന്ന അഡ്മിഷൻ എടുക്കുന്ന കോളേജുകളിൽ ചില കോളേജ്കളിൽ ഉണ്ട് അങ്ങനെ ഇല്ലാത്ത കോളേജുകളിൽ ആണെങ്കിൽ പുറത്ത് നിന്ന് ചെയ്യേണ്ടി വരും മൂന്ന് മാസത്തെ അല്ലങ്കിൽ ആറ് മാസത്തെ കോഴ്സ് ആയിരിക്കും അത് നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് വെച്ചോ ഇനി നിങ്ങൾക്ക് കിട്ടില്ലാന്നുണ്ടങ്കിൽ പറഞ്ഞാൽ മതി ഞങ്ങൾ തന്നെ ശരിയാക്കി തരാം ഓക്കേ ഓക്കേ അതും ആയി വേറെ എന്തെങ്കിലും ഉണ്ടോ മതി മതി ഈ കോൺടാക്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കേ